അതേല്ലോ ആ എന്താണ് പറഞ്ഞോ ആ അത് ലഞ്ചിൻ്റെ ടൈമിൽ നിർത്തേണ്ടതായിരുന്നു പക്ഷെ ടൈം പോയതു കൊണ്ടാണ് നിർത്താത്തത് അത് ഇന്നു വൈകീട്ട് നാല് മണിയാകുമ്പോൾ ബാംഗ്ലൂർ എത്തേണ്ട വണ്ടിയായിരുന്നു അപ്പോൾ കുറച്ച് ടൈമിൻ്റെ കാര്യത്തിൽ കുറച്ച് നമ്മളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ പോലും ആ ഇനിയിപ്പോൾ നാല് മണിക്ക് എങ്ങനെയെങ്കിലും അവിടെ ഏതാണ്ടതാണ് അതു കൊണ്ടു തന്നെ വണ്ടി ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടെ നിർത്തുണ്ടാകുള്ളു അതിപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അവിടെ ചെന്ന് കഴിയുമ്പോഴേ കഴി ഇനി നിർത്തുകയുള്ളൂ കാരണം ഇത്രയും ടൈം ഇവിടൊരുപാട് പാസഞ്ചേഴ്സ് ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ടൈമിന് അവിടെ ചെല്ലണമല്ലോ അതു കൊണ്ടു തന്നെ എടാ ഇപ്പോൾ എന്തായാലും നിർത്താൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്നാലോചിച്ച് നോക്കൂ ഈയൊരു ബസ് ടൈം അറേഞ്ച് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ആ ഇതിപ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്നു പറ്റിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് കാരണം പിന്നെ പാസഞ്ചേ പാസഞ്ചേഴ്സ് വന്നതിൻ്റെ ഒരു ടൈമിൻ്റെ ക്രമീകരണം കൂടി അനുസരിച്ചിട്ടാണ് ഇത്രയും ലേറ്റായത് അപ്പം പൂർണ്ണമായിട്ട് നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്കെന്നു പറയാനായിട്ട് ഒന്നും സാധിക്കത്തില്ല അതു കൊണ്ട് എന്നതായാലും നാല് മണിക്ക് അവിടെ ചെല്ലേണ്ട ബസ്സാണ് ആ ഒരു ടൈമിൽ എന്തായാലും അവിടെ എത്തിയെ പറ്റത്തുള്ളൂ യെസ് നേരത്തെ തന്നെയറിയാമല്ലോ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് നമ്മൾ വണ്ടി ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തി ഇതിപ്പോൾ പാസഞ്ചേഴ്സ് പാസഞ്ചേഴ്സ് മുഴുവൻ വന്നു കഴിഞ്ഞാലേ നമുക്കു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിപ്പം നമ്മൾ മാത്രം മിസ്റ്റേക്ക് കൊണ്ടാണെന്നു പറയാനും പറ്റത്തില്ലല്ലോ നിങ്ങൾ ഇത്രയും ദൂര യാത്രയാകുമ്പോൾ കയ്യിലെന്തെങ്കിലും ഒക്കെ കരുതണ്ടായിരുന്നോ ഇതിപ്പോൾ നിങ്ങൾ നിങ്ങളും കൂടി ഒരു ഇൻവോൾവ് ആയതു കൊണ്ടു തന്നെയാണ് ഇത്രയും ലാഗായത് ടൈമിൻ്റെ കാര്യത്തിൽ എന്തായാലും നാല് മണിക്കുള്ളിൽ ഈ ബസ്സവിടെ എത്തിയിട്ടു വേണം തിരിച്ച് അടുത്ത ട്രിപ്പ് വരാനായിട്ട് അപ്പോൾ അതിൻ്റേതായ നിങ്ങൾക്കു വേണ്ടി ടൈം സ്പെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ടൈം ഞങ്ങൾക്ക് നഷ്ടമായിട്ട് വരികയല്ലേ ചെയ്യുന്നത് നമ്മ് ഇപ്പോൾ തല്ക്കാലം നമുക്ക് എന്താ ചെയ്യാമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സ്നാക്സ് ചെറുതായിട്ട് പ്രൊവൈഡ് ചെയ്യാം

നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അവസ്ഥയും ഒന്ന് ചിന്തിക്കണമല്ലോ കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് കൊണ്ടല്ലല്ലോ ഇങ്ങനെയൊന്നും സംഭവിച്ചത് ഇപ്പോൾ പാസഞ്ചേഴ്സ് വന്നതിൻ്റെ ഒരു ലേറ്റ് ഇഷ്യുവിൻ്റെ പുറത്തും സംഭവിച്ചതാണല്ലോ ശരി താനെന്തായാലും ഇത്രയും പറഞ്ഞതല്ലേ ഇതു നമ്മൾ ഡ്രൈവറിനോട് സംസാരിക്കാം എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി തരാൻ എന്തെങ്കിലും സൗകര്യം നോക്കാം നോക്കാം നിർത്തി തരാനായിട്ട് നോക്കട്ടെ ശരി എങ്കിൽ